ഹലോ ഇത് ജിയോയുടെ കസ്റ്റമർ കെയർ നമ്പറല്ലേ രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ജിയോ സിം ഫൈവ് ജി ഡാറ്റയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ചിരുന്നു അതോടൊപ്പം ഞാൻ ഉപയോഗിക്കുന്നതും ഫൈവ് ജി ഡാറ്റയില് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണും കൂടിയാണ് അപ്പോൾ എനിക്ക് ഫൈവ് ജി ഡാറ്റ അൺലിമിറ്റഡ് ഡാറ്റ ലഭിക്കുന്നതിനും തടസ്സമായി മറ്റൊന്നുമില്ല അപ്പോള് ഞാൻ ഒരാഴ്ചയോളം ഫൈവ് ജി ഡാറ്റ കൃത്യമായി ഉപയോഗിച്ചിരുന്നു പിന്നീട് എൻ്റെ പ്ലാൻ പിന്നീട് ഞാൻ അതേ പ്ലാൻ ഫൈവ് ജി ഡാറ്റ പ്ലാനിലേക്ക് അൺലിമിറ്റഡ് പ്ലാനിലേക്ക് തന്നെ എൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തു പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ഫോൺ അത്ര തന്നെ ഉപയോഗിച്ചിട്ടും ഡാറ്റ അത്ര തന്നെ ഉപയോഗിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് എൻ്റെ ഇൻറർനെറ്റ് വേഗതയില് ലഭിക്കുന്നില്ല മന്ദഗതിയിലാണ് എനിക്ക് നെറ്റ് ലഭിക്കുന്നത് ഞാൻ സംശയിക്കുന്നത് എൻ്റെ നെറ്റ് കഴിഞ്ഞോ അതോ എൻ്റെ മൊബൈൽ നമ്പറിലുള്ള പ്ലാൻ മാറിയോ അതോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ പലപ്പോഴായി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കെപ്പോഴും ദ്രുതഗതിയിലുള്ള മൊബൈല് ഡാറ്റ ലഭിച്ചിട്ടുണ്ടുതാനും പക്ഷെ നിലവിൽ എനിക്ക് എൻ്റെ ഫൈവ് ജി ഡാറ്റ ലഭ്യമല്ല അതിന് വേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ സഹായമോ ചെയ്ത് എനിക്ക് എൻ്റെ ഇൻറർനെറ്റ് വേഗത തിരിച്ച് ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുതരുമോ